എന്താ ഇത് എന്തൊക്കെ സംസാരിക്കുന്നത് നല്ലതു മാത്രം സംസാരിച്ചു കൂടി നിങ്ങളുടെ ഫുഡ് ഓർഡർ ചെയ്ത് നല്ല ഡെലിവറി ബോയ് വന്നു കൊണ്ടിരുന്നതാണ് ഇയാൾ എന്തോന്ന് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാമോ നല്ല രീതിയിൽ സംസാരിക്കൂ എന്താണ് ഇത് ഒരു മാനേഴ്സില്ലാതെ പ്രായത്തെ എങ്കിലും ബഹുമാനിക്കണ്ടേ ഒരു അമ്മേനെ അമ്മേനെ പോലെ ഒരമ്മ നിനക്കും ഇല്ലേ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് അപമര്യദയായിട്ട് പെരുമാറുന്ന ഞാൻ എന്തായാലും ഇതു പരാതിപ്പെടും സ്വിഗ്ഗിയുടെ നല്ല ബോ ഡെലിവറി ബോയും നല്ല ഫുഡും ആയതു കൊണ്ടാണ് അവിടെ തന്നെ ഓഡർ ചെയ്യുന്നത് എന്നാലും ഇങ്ങനെയൊക്കെ കാണിക്കാമോ നീ എന്തോന്ന് കാണിച്ചത് ഇങ്ങനെയൊക്കെയാണോ എന്നോടു സംസാരിക്കേണ്ടത് ഇത് പോലെ എല്ലായിടത്തും നീ ഇങ്ങനെ ആയിരിക്കുമല്ലോ പെരുമാറുന്നത് ഇതൊന്നും ശരിയായ നടപടിയല്ല ഇതു ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ ചെയ്യും അല്ലാതെ ഒരു നിവർത്തിയില്ല പ്രായത്തെ എങ്കിലും ബഹുമാനിക്കേണ്ടേ ആരോടു പറയാൻ ഇത് പിന്നെ ഞാനൊറ്റക്കെന്നുള്ള വിചാരം നിൻ്റെ ഇതിലുണ്ടായതു കൊണ്ടാണോ എന്നാലും ഞാൻ അങ്ങനെ വിട്ടു തരാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഇതു റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും എന്തായാലും കമ്പനിയോടെനിക്ക് പരാതിപ്പെടാതിരിക്കാൻ നിവർത്തിയില്ല അല്ലെങ്കിൽ നീ ഇങ്ങനെ ആണോ ഒരു ഒരു വീട്ടിൽപ്പോയാൽ പെരുമാറേണ്ടത് നല്ല രീതിൽ സംസാരിക്കണ്ടേ എന്തായാലും ഇതൊക്കെ ഞാൻ പരാതിപ്പെടുക തന്നെ ചെയ്യും കമ്പനി നല്ല ഒരു ഫുഡ്ഡായതു കൊണ്ടാണ് സ്വിഗ്ഗിയിൽ തന്നെ ഞാനോഡർ ചെയ്യുന്നത് മര്യാദയില്ലാതെ പെരുമാറുന്ന ഒരു ഡെലിവറി ബോയിയെ ആണോ വിടേണ്ടത്

എന്തായാലും ഇതു ചെയ്യും ഞാൻ ഒരു ഒരിക്കലും ഇത് മാ പരാതിപ്പെടാതിരിക്കില്ല എനിക്കതു ചെയ്യാതെ പറ്റുകയുള്ളൂ ഇങ്ങനത്തെ ഡെലിവറി ബോയ് ഇനി അവർക്കുണ്ടാവരുത് നല്ല നല്ല ഡെലിവറിയും നല്ല ഡ് ഫുഡ്ഡും നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഉള്ള ഡെലിവറി ബോയിയാണ് ഇവിടെ വന്നു കൊണ്ടിരുന്നത് നീ എന്നു നിന്നെ ഇതിലേക്ക് എടുത്തത് എന്തായാലും നിന്നെ എനിക്ക് ഇനി ആ കമ്പനിയിൽ വെച്ചു പുലർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്തായാലും നീ ഇതു പോയേ പറ്റുകയുള്ളൂ ഞാൻ കമ്പനിയെ തന്നെ വിളിക്കാം പരാതിപ്പെട്ടാലെ പറ്റുകയുള്ളു എന്തോന്ന് വർത്താനം നല്ല രീതിയിൽ സംസാരിക്കാനറിയത്തില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് ഒരു ഒരു പ്രായത്തെ എങ്കിലും ബഹുമാനിക്കണ്ടേ ഞാൻ ഒന്നു ഞാൻ നിന്നോടു ഫുഡ് ചോദിച്ചു നീ നിനക്ക് ഞാൻ പൈസയും തന്നു പിന്നെ നീ എന്നിട്ട് ഇങ്ങനെയാണോ എന്നോടു പെരുമാറേണ്ടത് നല്ല രീതിയിൽ സംസാരിച്ചു കൂടെ ആരെയും എപ്പോഴും നല്ല രീതിയിലാണ് കാണേണ്ടത് നിങ്ങളുടെ കമ്പനി പോകുന്നതു പോലും ഞങ്ങളെ പോലെയുള്ള ആളുകളുണ്ടായിട്ടാണ് അല്ലാതെ നിനക്ക് ശമ്പളം തരുന്നതു പോലും ഞങ്ങളുടെ കയ്യിൽ നിന്നു പോകുന്ന പൈസ വെച്ചായിരിക്കും അവർ തരുന്നത് കമ്പനിക്കാർ നന്നായാൽ നീ രക്ഷപ്പെടുകയുള്ളൂ അതെങ്കിലും നിനക്ക് ഓർമ്മ വേണ്ടേ നിനക്കുമില്ലേ വീട്ടിൽ അമ്മ അമ്മ പെങ്ങന്മാർ എന്നാലും എന്നോടിങ്ങനെ പെരുമാറിയതെനിക്കു സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞാനിതു പരാതിപ്പെടുക തന്നെ ചെയ്യും കമ്പനിയെ ഞാൻ വിളിക്കട്ടെ എന്നിട്ട് ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കാം ഇതെന്താണെന്ന് ഹലോ നിങ്ങളുടെ ഡെലിവറി ബോയ് എന്നോടു അപമര്യാദയായി പെരുമാറുകയും വേണ്ടാത്ത വർത്താനങ്ങൾ സംസാരിക്കുകയും ചെയ്തു മേ മേലാൽ ഈ ഡെലിവറി ബോയിയെ എൻ്റെ വീട്ടിലേക്കയക്കരുത് കാരണം എനിക്കത്ര വിഷമമുണ്ടായി ഞാനും പിന്നെ ഒരു കുടുംബത്തിൽ ജീ ജീവിക്കുന്ന ഒരമ്മയാണ് എന്നെ ഇത്ര രീതിയിൽ അവൻ അപമര്യാദയായി പെരുമാറിയത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഫുഡ് നല്ലതായതു കൊണ്ടും നിങ്ങളുടെ ഡെലിവറി നല്ലതായതു കൊണ്ടാണ് ഞാനോഡർ ചെയ്തത് എനിക്കിനി നിങ്ങളോ നിങ്ങളെയോ നിങ്ങളുടെ കമ്പനിയോടൊ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്തായാലും ഇനി എനിക്ക് ഇത് തുടർന്നു പോകാൻ സാധിക്കില്ല എത്രയും പെട്ടെന്ന് ഈ ഡെലിവറി ബോയിയെ നിങ്ങൾ ഒന്നി നിങ്ങളുടെ കമ്പനിയിൽ നിന്നു പിരിച്ചു വിടുകയോ അതിനു മേൽ നടപടി ചെയ്യുകയോ ചെയ്യുക